ഹലോ ഇത് ലാപ്ടോപ്പ് സർവീസ് ചെയ്യുന്ന സെൻ്ററല്ലേ ആ ബ്രോ എൻ്റെ പേര് അഭിനവ് എന്നാണ് ആ ബ്രോ എന്റെയടുത്ത് എന്റെയടുത്തൊരു ലാപ്പുണ്ട് ഒരു അസ്യൂസിൻ്റെ ആ അപ്പോള് ഞാനിടയ്ക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കാറുണ്ട് പിന്നെ ഞാന് കുറച്ചു എഡിറ്റൊക്കെ ചെയ്യുന്നതാണ് ഫോട്ടോസും വീഡിയോസുമൊക്കെ അപ്പോള് ലൈറ്റ് റൂമൊക്കെ യൂസ് ചെയ്യുമ്പോള് ലാപ് വല്ലാതെ ഹീറ്റാകും കുറേ നേരം ഹീറ്റായി കഴിയുമ്പോള് പെട്ടെന്നങ്ങ് ഷട്ട് ഡൗണായി പോകും

അതിനിടയ്ക്ക് കുറച്ച് കഴിയുമ്പോള് നല്ലവണ്ണം ഹീറ്റാകും പിന്നെയങ്ങ് ഡെഡായി പോകും ഇല്ല ഇല്ല അപ്ഡേറ്റൊക്കെ ഞാന് പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ട് ഉണ്ട് ഉണ്ട് ഗ്രാഫിക്സ് കാഡില് നിന്നാണോ ഒറ്റ മിനിറ്റേ ആ ഓക്കെ ചെയ്തു ആ ഒരു അപ്ഡേഷൻ വന്ന് കിടക്കുന്നുണ്ട് ഏകദേശം അറൗണ്ട് എത്ര വരും ഓ അതൊരു പ്രശ്നമാണല്ലേ ഞാനെന്തായാലുമൊന്ന് അപ്ഡേറ്റ് ചെയ്തുനോക്കാം ആ ഞാനെന്നാല് ആ ഓക്കെ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യട്ടെ ഇപ്പോള്ത്തന്നെ എന്നിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാനൊരു രണ്ട് ദിവസം യൂസ് ചെയ്തുനോക്കട്ടെ എന്നിട്ട് ഓക്കെ ആയില്ലെങ്കില് ഞാന് എന്തായാലും ഷോപ്പിലേക്ക് കൊണ്ടുവരാം ആണല്ലേ ഓക്കെ ബ്രോ ഞാനെന്തായാലും ഒന്ന് ചെയ്തുനോക്കട്ടെ റെഡി ആയില്ലെങ്കില് ഞാന് ഷോപ്പിലേക്ക് വരാം കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ